കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയായ പാലക്കാടിലെ പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സഹകരണ ബാങ്കുകൾ അതുപോലെത്തന്നെ സഹകരണ സംഘങ്ങൾ സഹകരണ സംഘങ്ങളുടെ മിൽമ പോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ഇപ്പോൾ പാലക്കാട് വലിയൊരു പ്രദേശമാണ് വലിയൊരു ജില്ലയാണ് ഇതിന്റെ മുക്കിലും മൂലയിലും ഈ പ്രാദേശിക സർക്കാരിന്റെ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരിന്റെ സംരംഭങ്ങൾ സഹകരണ സംഘങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഈ സഹകരണ ബാങ്കിലൂടെ ഒക്കെ നമുക്ക് ഈ ബാങ്ക് ലോൺ ആയിട്ടും അതുപോലെത്തന്നെ മറ്റു ചില പല കാര്യങ്ങൾക്കും ബാങ്ക് നമുക്ക് വളരെയധികം സഹായമുണ്ട് അതുപോലെ സഹകരണ സംഘങ്ങൾ വഴി നമുക്ക് നമ്മുടെ പാല് ഉൽപ്പന്നങ്ങൾ കൊടുക്കാനും അതുപോലെത്തന്നെ പച്ചക്കറി വിതരണത്തിനും എല്ലാം ഈ പ്രാദേശിക സർക്കാരിൻറെ സംരംഭങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമാണുള്ളത് അതുപോലെത്തന്നെ ഇന്ന് നമ്മുടെ പാലക്കാട് ജില്ലയില് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ സംരംഭങ്ങൾ അതുപോലെത്തന്നെ സർക്കാർ ഓഫീസുകളിൽ ഒക്കെ വളരെ വലിയൊരു വികസന പരിപാടിയാണ് മുന്നോട്ടുവെക്കുന്നത് ഈ വികസന പരിപാടി താഴെത്തട്ടിൽ ഉള്ളവർക്കൊക്കെ വളരെയധികം വലിയൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഈ സഹകരണ സംഘങ്ങൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ വഴി താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് മുന്നോട്ടുവരാനും അതുപോലെതന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ജോലി പരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെതന്നെ ജോലി നൽകുന്നതിലും അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ ആവശ്യങ്ങൾക്കായിട്ടുള്ള പണം ലഭ്യതക്കൊക്കെ ഈ സ്ഥാപനങ്ങളിൽ വളരെയധികം പ്രാധാന്യമുണ്ട്